മലയാളം കൂടുതൽ സംസാരിക്കുമ്പോളാണ് നമ്മൾ മലയാളം നമ്മൾക്ക് പറയാനുള്ള ഒരു ഇത് വരികയുള്ളൂ പല രാജ്യത്ത് പോയാലും മലയാളം തന്നെ നമുക്ക് പ്രചോദനം കൂടുതലും സംസാരിക്കുന്നതും

കൂടുതൽ

മലയാള ഭാഷ അത്രയും നമ്മളുടെ മാതൃഭാഷയായി തന്നെ കൊണ്ട് നടക്കണം ഇപ്പോഴത്തെ കാലത്ത് നോക്കുകയാണെങ്കിൽ മാതൃഭാഷ നമ്മുടെ പുറകോട്ടിലേക്ക് പുറകോട്ടാണ് നയിക്കുന്നത് പിന്നെ കവികൾ പല കവിതയിലും കഥയിലും നമുക്ക് കാണാൻ കഴിയും മലയാളത്തെ കുറിച്ച് മലയാളം അത്രയും ഗാഭീര്യമുള്ളൊരു ഭാഷ തന്നെയാണ്

അങ്ങനെ

അപ്പം മലയാള ഭാഷ അത്രയും നമ്മൾ ഉൾക്കൊള്ളുന്നതാണ്

അങ്ങനെ പല കവികളും ഉണ്ടല്ലോ